ഹലോ ഇത് ഹോട്ടൽ ആസാദല്ലേ ആ ഞാനേ ഞാനിപ്പോൾ ഒരു ട്രെയിനിൽ ഞാൻ ഇവിടുന്ന് കൊല്ലത്തുനിന്ന് ഞാൻ പിന്നെ കർണാടകത്തിലേക്ക് പോകാനായിരുന്നു ബാംഗ്ലൂര് പോവാനായിരുന്നു അപ്പോൾ എനിക്ക് ഇടയ്ക്ക് വെച്ചൊരു എൻ്റെ ട്രെയിന് ഇച്ചിരി ലേറ്റാണ് ഭക്ഷണം ഒക്കെ ശരിക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ നിങ്ങൾ ഞങ്ങൾ നിങ്ങളുടെ ആ ഷൊർണൂർ സ്റ്റേഷനിൽ വരുമ്പോഴത്തേക്ക് അവിടുന്ന് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഒരു അഞ്ചാറ് പേർക്ക് ഫുഡ് തരാനായിട്ട് പറ്റുമോ മഴയും കാലാവസ്ഥയും ഒള്ളതുകൊണ്ട് ഇച്ചിരി സമയം ലേറ്റായിരിക്കും അവിടെ എത്രമണിക്ക് വരുമെന്ന് അറിയത്തില്ല ഞങ്ങൾ കയറിയിരിക്കുന്ന വണ്ടിയുടെ നമ്പർ വേണമെങ്കിൽ ഞാൻ അയച്ചുതരാം അപ്പോൾ നിങ്ങൾ അവിടെ വരുമ്പോഴത്തേക്കൊന്ന് അറേൻഞ്ച് ചെയ്തിട്ട് ആ അവിടെ ഞങ്ങൾക്ക് ഒരു ഏഴ് പേർക്ക് ഉള്ള ഫുഡ് ഒന്ന് അവിടെ സ്റ്റേഷനിൽ കിട്ടണം അതിന് അനുസരിച്ച് ഞങ്ങളവിടെ എത്ര മണിക്ക് വരും എന്ന് നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാമല്ലോ ഞങ്ങൾ നമ്പര് ഇട്ടുതരാം അപ്പം അങ്ങനെയാണെങ്കിലേ അത് അനുസരിച്ച് ഞങ്ങൾക്കൊന്ന് ഞങ്ങൾക്ക് കറക്റ്റായി വൈകുന്നേരത്തെ ഫുഡായിരിക്കും ഉദ്ദേശിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അപ്പോൾ ഏതൊക്കെ നിങ്ങളുടെ എന്തൊക്കെയാ ഉള്ളതെന്നുള്ള വിവരം ഒന്ന് ഞങ്ങൾക്ക് മെസേജ് ഇട്ടിരുന്നാലേ ആ ഫുഡ് ഞങ്ങളാകുമ്പോൾ ഞങ്ങളതിന് കറക്റ്റായിട്ട് മെനു കാണിച്ച് ഇട്ടുകഴിഞ്ഞാൽ ഞങ്ങളത് അനുസരിച്ച് ഓഡറ് തന്നേക്കാം നിങ്ങൾ അവടെ ഒരു പാർസല് എത്തിച്ചാൽ അവിടെ വന്നിരുന്നാൽ മതി സ്റ്റേഷനിൽ വന്നാൽ മതി ഞങ്ങൾ പേമെൻറ്റെക്കെ കറക്റ്റായിരിക്കും കുഴപ്പം ഒന്നും ഇല്ല അപ്പോൾ സ്റ്റേഷനിൽ വന്നു കഴിഞ്ഞാലേ ഞങ്ങൾ അവിടുന്ന് ഞങ്ങൾ പിക്കി സാധനം എടുത്തോളാം നിങ്ങൾ അവിടെ പേമെൻറ്റ് പിന്നെ ഓൺലൈനായിട്ട് ചെയ്തേക്കാം കൊഴപ്പം ഒന്നും ഇല്ല അപ്പോൾ നല്ല ഫുഡ് തരണമെന്നുള്ളതേ ഉള്ളൂ ആ സമയം ഞങ്ങള് കറക്റ്റ് ട്രെയിനിൻ്റെ സമയം നോക്കി നിങ്ങൾ ആ സ്റ്റേഷനിൽ സാധനം എത്തിച്ച് തരണം അത്രയേ ഉള്ളൂ ചെയ്യാൻ പറ്റുമെങ്കിൽ അതൊന്ന് പെട്ടന്നൊന്ന് പറയണേ